ആ അതെ അതെ ആരാണ് വിളിക്കുന്നത് ആ എ എന്താണ് മാം മാം ഇപ്പം അവൈലബിൾ ആയിട്ട് ലോ കോസ്റ്റിൽ അങ്ങനെ അറിയാമല്ലോ ഇപ്പോൾ സ്ഥലത്തിനായാലും നല്ല ഒരു സ്ഥലം അത് മേടിക്കണമെങ്കിൽ തന്നെ നല്ല റേറ്റ് ആണ് ഇപ്പം ലോ കോസ്റ്റിൽ അങ്ങനെ സ്ഥലം മേടിക്കുന്നത് ചുരുക്കമാണ് അങ്ങനത്തെ ഒരു സ്ഥലം ആവുമ്പം അവിടെ അത്രയും സെൻറിനായാലും ഇപ്പം തന്നെ എത്രയാണ് പത്ത് ലക്ഷം രൂപ സംതിങ്ങ് ആവും നല്ലൊരു ന ആ നല്ലൊരു റേറ്റ് ഒക്കെ വരും അപ്പോൾ ലോ കോസ്റ്റ് സ്ഥലങ്ങൾ ആ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലം എങ്ങനെ ആയിരിക്കണം കാരണം ഇപ്പം രണ്ട് നില വീട് വയ്ക്കാനാണോ അപ്പം എത്ര സെൻറ് ആണിപ്പോൾ പത്ത് സെൻറ് പത്ത് സെൻറ് ആണോ അഞ്ച് സെൻറ് ആണോ ഞങ്ങളെ കയ്യിൽ കുറേ ഉണ്ട് പക്ഷേ എന്നാലും അത് കുറേ ഒക്കെ ബുക്ക് ആയി കിടക്കുവാണ് കാരണം എല്ലാവരും ഇപ്പോൾ സ്ഥലം മേടിച്ച് വീട് വയ്ക്കുന്നത് കൊണ്ട് മാം അത് ഓൾ ഓൾറെഡി ബുക്കിങ്ങ് ഒക്കെ വരുന്നുണ്ട് ഓൾറെഡി അത് ബുക്ക് ആയി കിടക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഓണറിനെ വിളിച്ച് പറഞ്ഞിട്ട് ആ ചോദിക്കാം എന്തെങ്കിലും ലാൻഡ് ആലപ്പുഴയിൽ ഇങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നിങ്ങനെ ഞാൻ ചോദിക്കാം എന്നാൽ മാത്രം എനിക്ക് കൺഫേം ഉൾ സ്ഥലങ്ങളൊക്കെ വേണ്ട ആലപ്പുഴയിൽ ഉണ്ട് ആലപ്പുഴ ആണേ ഞങ്ങൾ നോക്കുന്നതുണ്ട് പിന്നെ പത്തനംതിട്ട കുറേ ഏരിയയിൽ ഒക്കെയുണ്ട് പിന്നെ ചങ്ങനാശ്ശേരിയിൽ തന്നെ കുറേ സ്ഥലങ്ങൾ ആലപ്പുഴയാണ് വേണ്ടത് ആ ആലപ്പുഴ നമുക്ക് പോയി ഇറങ്ങി തന്നെ ഇറങ്ങിയാൽ കുറേ സ്ഥലങ്ങളൊക്കെ കാണും എന്തായാലും നമുക്ക് അതിനൊരു ദിവസമായിട്ട് ഇറങ്ങാം കാണാൻ നിങ്ങളും എൻ്റെ കൂടെ വെരണം നിങ്ങളാണല്ലോ സ്ഥലം മേടിക്കുന്നത് അപ്പം നിങ്ങൾ കണ്ട് ആ ഞാനിത്ര പൈ പൈസയുടെ കാര്യങ്ങളൊക്കെ ഞാൻ വാട്ട്സാപ്പ് ചെയ്തുതരാം എത്രയാകും ഇത്ര സെൻറിന് എത്രയാകും എന്നുള്ളതൊക്കെ ചെയ്തുതരാം നിങ്ങൾ മേടിക്കുന്നതുകൊണ്ട് ആ ഒരു സെൻറ് ആണ് നല്ലത് കാരണം നല്ലൊരു റേറ്റ് ഇപ്പോഴത്തെ സ്ഥലത്തിനൊക്കെ മാമിന് അറിയാമല്ലോ സ്ഥലങ്ങളും കാരണം എല്ലാവരും ഇത് വീട് വയ്ക്കുന്നതുകൊണ്ട് നല്ല സ്ഥലത്തിനൊക്കെ നല്ല റേറ്റ് ആവും അപ്പം നല്ല ഇത് വരും നിങ്ങൾ ഒരു നില വീടാണോ മാം ഉദ്ദേശിക്കുന്നത് ഒരു നില വീടാണോ ഉദ്ദേശിക്കുന്നത് ആ അല്ല മാം എത്ര വരും എല്ലാം കൂടെ നമുക്കൊരു ഫെസിലിറ്റീസ് കിട്ടില്ല മാം ഒരു സ്ഥലം മേടിച്ച് നമുക്ക് ഇപ്പോൾ വീട് വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലങ്ങൾ എന്തായാലും കാണും ഇപ്പം നിങ്ങൾ മൂന്ന് സെൻറിനാണ് വീട് വയ്ക്കുന്നതെങ്കിൽ ബാക്കി ഒരു രണ്ടര സെൻറ് സ്ഥലമെങ്കിലും നിങ്ങൾക്ക് ബാക്കി മിച്ചം കാണാം പക്ഷേ നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റൽ അടുത്ത് വേണം പള്ളി അങ്ങനെ അങ്ങനെ വേണം എന്തായാലും കുറച്ച് ദൂരം നമുക്ക് യാത്ര ഒരു രണ്ട് മിനിറ്റ് അല്ല മൂന്ന് മിനിറ്റ് ഒരു യാത്രയ്ക്കൊരു ബുദ്ധിമുട്ട് വരും മാം അല്ലാതെ പ്രോപ്പർ ആയിട്ട് ഒരു സ്ഥലം ആ ആ അത് കുഴപ്പം ഇല്ല മാം എന്താണ് അവൈലബിൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മാമിനെ വിളിക്കുന്നതായിരിക്കും പിന്നെ ഈ ക്ക് എൻ്റെ ഒരു രീതി അനുസരിച്ച് അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ കുറേയായിട്ട് ഇപ്പോൾ മഴ ആലപ്പുഴയിലോ ആലപ്പുഴയിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം ഏതൊക്കെയാണ് ആലപ്പുഴയിൽ ചമ്പക്കുളം ചമ്പക്കുളം വേണ്ട മങ്കൊമ്പ് അങ്ങോട്ടൊന്നും വേണ്ട

അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ കിഴക്കോട്ട് നോക്കുന്നതല്ലേ മാം നല്ലത് കാരണം ഓ അവിടുന്ന് ഓക്കെ ഫാമിലി ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണോ ആ ആ ഓക്കെ ഓക്കെ കുഴപ്പം ഇല്ല ആ അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വാട്ട്സാപ്പ് ചെയ്യണം എത്ര സെൻറ് ആണ് എത്ര എന്തായാലും ഒരു പത്ത് ലക്ഷം സംതിങ്ങ് ആവും നിങ്ങൾ എന്തായാലും ഒരു ഹാഫ് എമൗണ്ട് എങ്കിലും ഫസ്റ്റ് അടയ്ക്കേണ്ടി വരും കാരണം അതിൻ്റെ ആ രജിസ്ട്രേഷൻ ഫീ ഉണ്ട്

കുഴപ്പം ആ ഓക്കെ മാം കുഴപ്പം ഇല്ല പക്ഷേ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് അറിയുന്നത് കൊണ്ട് ഞാൻ മാക്സിമം അത് കുറയ്ക്കാൻ ശ്രമിക്കാം അല്ലെങ്കിലും മാമിന് അറിയാമല്ലോ സ്ഥലത്തിനൊക്കെ ആയാലും ഇപ്പോൾ ഒരു വില കൂടി കൂടി വരുന്നതാണ് എല്ലാവരും ഇപ്പോൾ സ്ഥലം മേടിച്ച് വീട് വയ്ക്കുന്നത് കൊണ്ട് ഓൾറെഡി സ്ഥലത്തിനൊക്കെ നല്ല വില വരുവാണ് അപ്പോൾ അതിൻ്റെതായൊരു ബുദ്ധിമുട്ട് എന്തായാലും വരും ആ ഞാൻ ഉറപ്പായിട്ട് ആ ഉറപ്പായിട്ടും ഞാൻ വാട്ട്സാപ്പിൽ തന്നെ ഷെയർ ചെയ്തേക്കാം അത് ഓർത്ത് അത് ഓർത്ത് നിങ്ങൾ പേടിക്കണ്ട ആ പക്ഷേ എന്താണ് നിങ്ങൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് നല്ല ഒരിതേ തരുള്ളൂ നിങ്ങൾ അത് ഓർത്ത് പേടിക്കുവൊന്നും വേണ്ട ഇത്ര ഇത്ര സെൻറ് ആണ് അത് ആ ഓ ഓക്കെ ഓക്കെ